എൻ്റെ വീടിനടുത്തുള്ള ആശുപത്രികളെടുത്ത് നോക്കിയാൽ അതില് ചില ആശുപത്രികളിൽ ഈ പറഞ്ഞ പോലെ എക്സ്റേയും സി ടി സ്കാനും എമ്മാറൈ അങ്ങനെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല ചില ആശുപത്രികളിലാണെങ്കിൽ ഇതൊന്നുമുണ്ടാവാറുമില്ല അപ്പോള് അവിടെ ചെല്ലണ്ട ചെല്ലുന്ന ആളുകൾക്ക് വേറെ പുറത്തേക്ക് പോകേണ്ടിവരും എന്തെങ്കിലും രക്ത പരിശോധനയക്കെ നടത്താനായിട്ട് ഇപ്പോള് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ ഇതുപോലെ എല്ലാ സൗകര്യങ്ങളുമില്ല ഡോക്ടറുടെ സേവനവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമുണ്ടെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ടെസ്റ്റും ഒക്കെ നടത്തണമെങ്കിൽ നമ്മള് പുറത്തേക്ക് പോകേണ്ടി വരും ഇപ്പോള് ഒരു തവണ ഇപ്പോള് എൻ്റെ ഒര് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപെൻ്റെ കൈയൊന്നൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോള് വീടിനടുത്ത് വെച്ച് തന്നെയാണ് സംഭവിച്ചത് അപ്പോള് കൈ നല്ല വേദനയായിരുന്നു അപ്പോള് ഏറ്റവും ഇപ്പോള് നമ്മളങ്ങനെയൊരു അവസ്ഥ വരുമ്പോള് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലാണല്ലോ പോവാൻ നോക്കുക അപ്പോള് എൻ്റെ ഏറ്റവും അടുത്തുള്ള ആശൂത്രിയിലാണ് പോയത് പക്ഷെ അവടെച്ചെന്ന് കഴിഞ്ഞപ്പോള് അവിടെ ഈ എക്സ്റേ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോള് ആ കൈയൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അടുത്തുള്ള വേറെ പുറത്തൊരു ലാബിലേക്ക് പോവണ്ടി വന്നു ലാബാണെങ്കില് തൊട്ടടുത്ത് ഉണ്ടായിരുന്നുമില്ല അപ്പോള് വേറൊരു സ്ഥലത്ത് പോയി എക്സ്റേ നടത്തേണ്ടി വന്നു അപ്പോള് അതൊരു വളരെയധികം ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക ഇത് ഒരു ടെസ്റ്റിന് വേണ്ടി സഞ്ചരിക്കുക എന്നു പറഞ്ഞാല് അതൊരു ഡിസ്കംഫേട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോള് എല്ലാ ആശുപത്രിയിലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളില്ല അപ്പോള് ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും വേണ്ടുന്നതാണ് കാരണം വരുന്ന എല്ലാ രോഗികൾക്കും ഇത് പോലെ പുറത്ത് പോയി പരിശോധനകൾ ചെയ്ത് വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എല്ലാവർക്കും വാഹനങ്ങളും എല്ലാം ഉണ്ടാവണമെന്നില്ല ഇങ്ങനെ വേറെ സ്ഥലത്ത് പോയി വരാനായിട്ട് അപ്പോള് ഇപ്പോള് അപ്പോള് അങ്ങനത്തെ രോഗികൾക്കും ഒക്കെ നല്ലൊരു കാര്യമാവും ഇങ്ങനത്തെ എല്ലാ ഹോസ്പിറ്റൽസിലും ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് പോലെതന്നെ പുറത്തെ ലാബിൽ പോയിക്കഴിഞ്ഞാൽ ഇപ്പോള് ചില ലോബുകളിലൊക്കെ ഇതിന് ഒരുപാട് കാശ് മേടിക്കുന്നുണ്ട് അതായത് ഇപ്പോള് രക്ത പരിശോധന ഒക്കെ ഇതിനൊക്കെ വേണ്ടി ചില ലാബിലൊക്കെ ഒരുപാട് കൂടിയ പൈസ മേടിക്കുന്നുണ്ട് അപ്പോള് അത് സാമ്പത്തികമായി അധികം ഉയർച്ചയില്ലാത്ത രോഗികൾക്കാണെങ്കിൽ അത് വളരേ ബുദ്ധിമുട്ടാവുന്നൊരു കാര്യമാണ് അപ്പോള് എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നാണ് എൻ്റെ ഒരൂ അഭിപ്രായം